ഞങ്ങള് പിന്നെ പണ്ടൊക്കെ ഇഷ്ടംപോലെ പിന്നെ അങ്ങനെ പരമ്പ് അങ്ങനത്തെ സാധനങ്ങള് അങ്ങനെയൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് കുഞ്ഞി കുഞ്ഞിക്കൊട്ടകള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ തുന്നല് ഇഷ്ടംപോലെ പാവാടയും അങ്ങനെ ചുരിദാര് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചുരിദാര് ചുരിദാര് പാവാട ബ്ലൗസ് അങ്ങനത്തെ സാധനങ്ങള് സ്കർട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ നിർമ്മിച്ചിട്ടുണ്ട് പണ്ടെല്ലാം നമ്മള് തുന്നി കൈകൊണ്ടൊക്കെ തുന്നി ഇങ്ങനെ നല്ല എംബ്രോയ്ഡെറി അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം ഇപ്പോള് സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ അതിനും വിദ്യകളും എല്ലാം പുരോഗമിച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ടത് അതിനാണെങ്കിലും ഇപ്പോള് പുതിയ പുതിയ രീതികളുണ്ട് അതിനൊക്കെ പിന്നെ തുന്നൽ തുന്നലിന്റെ രീതികളൊട്ടും തുന്നാനാണെങ്കിലും ഇപ്പം ഇഷ്ടംപോലെ നല്ല ആധുനികമായിട്ടുള്ള തയ്ക്കാനാണെങ്കിലും ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഇപ്പോഴെല്ലാ കാര്യങ്ങളും നല്ല എളുപ്പത്തിലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എളുപ്പത്തില് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ എന്താണ് നെയ്ത്ത് പണ്ട് ഓല കൊണ്ട് നമ്മള് സാധനങ്ങള് കൊട്ട അങ്ങനെ കൊട്ട വട്ടി പരമ്പ് മുറം മുറം അങ്ങനെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കാറുണ്ടായിരുന്നു ഉണ്ടാക്കാറുണ്ടായിരുന്നു പിന്നെ തയ്ക്കാനാണെങ്കില് സാധനങ്ങള് ഇഷ്ടമ്പോലെ ഡ്രസ്സുകള് ചുരിദാര് സാധനങ്ങള് അങ്ങനെയൊക്കെ തയ്ച്ചിട്ടുണ്ട് ചുരിദാര് സാധനങ്ങള് അങ്ങനെയെല്ലാ സാധനങ്ങളും തയ്ച്ചിട്ടുണ്ട് തയ്ക്കുന്നുണ്ട് ഇഷ്ടംപോലെ സാധനങ്ങള് തയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നമ്മള് ചവിട്ടി തയ്ച്ചിട്ടുണ്ട് പിന്നെ സാധനങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ഇഷ്ടം അങ്ങനെയൊക്കെ ചെയ്തതാണ് ഇപ്പം പക്ഷേ ഇപ്പോള് എല്ലാത്തിനും കാലം മാറിയപ്പോൾ എല്ലാത്തിനും പുതിയ പുതിയ ഇതുകള് വന്നു പുതിയ പുതിയ പുതിയ രീതികള് വന്നു അപ്പം അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഇപ്പം നന്നായി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പണ്ടായിരുന്നെങ്കിൽ എല്ലാം നമുക്ക് കുറെയൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു ഇപ്പോഴെല്ലാം നല്ല എളുപ്പത്തിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുന്നത് നല്ല എളുപ്പത്തില് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്